ഞാൻ പ്രത്യേകമായിട്ട് നെയ്ത്തുകളൊന്നും പഠിച്ചിട്ടില്ല പക്ഷെ തുന്നലുകൾ എനിക്ക് താല്പ്പര്യമാണ് അപ്പം ഞാൻ അത് പഠിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ഒരു ഒരു ക്ലാസ്സിൻ്റെ ഒരു സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ച് തരുമായിരുന്നു അങ്ങനെയാണ് ഇതിലേക്ക് ഞാന് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു തുന്നൽ എംബ്രോഡറി സ്റ്റിച്ചിംഗ് ആ ഒരു ഇതിലേക്ക് ഞങ്ങൾ വരുന്നത് അപ്പം എനിക്ക് എനിക്ക് എംബ്രോഡറി ചെയ്തു സ്വന്തമായിട്ട് തുന്നിയെടുക്കുന്ന വസ്ത്രങ്ങളൊക്കെ ഇഷ്ടമാണ് അതുപോലെതന്നെ ഇന്ന് സ്വന്തവായിട്ട് തൈച്ചെടുക്ക്ന്ന വസ്ത്രങ്ങളും ഒക്കെ എനിക്ക് ഇഷ്ടമാണ് അത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ബാക്കി ഉള്ളവരില് നിന്ന് ഡിഫ്രൻ്റ് ആയിട്ട് ഒരു സ്റ്റൈല് ഒരു ഒരു ഫാഷൻ ഒരു ഒരു ഇത് നമുക്ക് കിട്ടും അപ്പം നമ്മുടേത് നമ്മുടെ ഒരു ടേസ്റ്റ് നമ്മുടെ ഒരു ഇഷ്ട്ടം അതിൽ കൊണ്ടു വരാന് പറ്റും അപ്പം നമ്മുടേതായിട്ടുള്ള ഒരു വ്യക്തിതം ആ ഡ്രെസ്സിന് ആ ഒരു ആ ഒരു നമ്മുടെ ഒരു ഇതിന് കിട്ടുന്നുണ്ട് അങ്ങനെ എനിക്ക് തോന്നിയിട്ടൂണ്ട് പിന്നെ എനിക്ക് ഇത് ചെയ്തു ഓരോ ഡ്രെസ്സിന് ചേരുന്ന കളറ് അതിന് ചേരുന്ന എംബ്രോഡറി അതിന് ചേരുന്ന തുണി ഏതാണ് നല്ലത് അങ്ങനെ ഒക്കെ ആലോചിക്കുംമ്പം മനസ്സിനൊരു സുഖം കിട്ടുന്നുണ്ട് കാരണം എൻ്റെ ഒരു എൻ്റെ ഒരു കഴിവ് എൻ്റെ ഒരു ഡെവലപ്മെൻ്റ് നടക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് പിന്നേ ഞങ്ങൾ ഞങ്ങൾ ഞാൻ ആരേയും അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല പക്ഷെ എനിക്ക് ആള്ക്കാർ പഠിപ്പിച്ചു തരാറുണ്ട് പിന്നെ അറിയാവുന്ന ഒരു സ്റ്റിച്ചൊക്കെ കാണുമ്പഴത്തേക്കിനും ആ ഇങ്ങനാണ് ന്നെക്കെ പറഞ്ഞ് ഇത് ചെയ്യാറുണ്ട് ഇതൊരു കൈത്തൊഴിൽ ആയിട്ട് പഠിക്ക്മ്പഴത്തേക്കിനും നമ്മൾക്ക് കുറച്ചൂ ക്ടൂടെ സാമ്പത്തികമായിട്ട് അവർ ഭദ്രത ഇതില് നിന്ന് കിട്ടുന്നുണ്ട് നമ്മൾക്ക് മ്അമ്ത്യുവശ്യത്തിന് വേണ്ട നമ്മുടെയൊരു കാര്യങ്ങള്ക്കെക്കെ വേണ്ടിയിട്ട് ഇപ്പം വേണ്ടി നമക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തു ആര്ക്കേലും കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഡിസൈനുണ്ട് നമ്മൾക്ക് അറിവിലുണ്ട് ആ ഒരു ഡിസൈന് നമുക്ക് മക്സിമം ക്ക് മാക്സിമം ആള്ക്കാരിലേക്ക എത്തിക്കാന് പറ്റും അങ്ങനെ ഒരു ചെറിയ ഒരു ഒരു കട പോലെയൊക്കെ ഇട്ട് അതൊരു ബിസ്സ്നസ്സ് മേഖലയാക്കി എടുക്കുന്ന ഒത്തിരി പേരുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അ രു വിജയവായിട്ട് തന്നെ അത് അതൊരു മെയിന് ബിസിനസ് ആക്കി വരുമ്പഴത്തേക്കിനും അതില് നിന്ന് കുറേ പണമൊക്കെ കിട്ടുന്നുണ്ട് അതൊരു ഒരു ഒരു സന്തോഷം അതില് നിന്ന് ലഭിക്കുന്നുണ്ട് നമ്മൾക്ക് കുറച്ചു കൂടെ നമ്മളെ തന്നെ മുന്നോട്ട് കൊണ്ടു വരാനൊക്കെ അതില് നിന്ന് സാധിക്കുന്നുണ്ട്